അയ്യയ്യോ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കൊരു പേപ്പർ വേണമെങ്കിൽ വില്ലേജിൽ പോകണം സപ്ലൈകോയിൽ പോകണം പഞ്ചായത്തിൽ പോകണം അങ്ങനെ നൂറു സ്ഥലത്ത് പോകണം നമ്മൾ ഒരു കാര്യം വേണമെങ്കിൽ അത് എല്ലാം കൊണ്ടുപോയിട്ട് ലാസ്റ്റ് അക്ഷയയിൽ പോയാലോ നമുക്ക് എന്തെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഏറ്റവും കൂടുതൽ വില്ലേജ് ഓഫീസിലും നമ്മുടെ പിന്നെ സപ്ലൈകോ ഓഫീസിലും ആണ് ഈ റേഷൻ കാർഡ് സംബന്ധമായ പേരുമാറ്റാൻ ഒക്കെ ആണെങ്കിൽ പോകേണ്ടത് ആധാർ കാർഡ് വേണം പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ പോയിട്ട് നമ്മൾ ഈ വാർഡിൽ തന്നെയാണ് താമസിക്കുന്നത് ഉള്ളതിനൊക്കെയുള്ള രേഖകൾ വേണം അപ്പോൾ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്കിത് കുറച്ച് പ്രയാസം ഉള്ളതാണ് കാരണം ഓരോ സ്ഥലത്ത് പോയി ഓരോ രേഖകൾ ഉണ്ടാക്കണം അപ്പോഴായിരിക്കും നമ്മൾ പലതും പല കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ കുറച്ച് പ്രയാസം ഉള്ളതാണ് കാരണം എല്ലാം എല്ലാം എല്ലാം ആയിട്ട് ലിങ്ക് ആയിട്ട് കിടക്കുന്നതാണ് നമ്മൾ ഒരു സ്ഥലത്ത് പോയി മറ്റ് സ്ഥലത്ത് പോയി എല്ലാ സ്ഥലവും റെഡിയാക്കി ലാസ്റ്റ് പേപ്പർ എല്ലാം പിന്നെ അക്ഷയ വഴി ആയത്കൊണ്ട് അക്ഷയയിൽ കൊണ്ട് കൊടുത്താൽ നമുക്ക് കാര്യം കിട്ടും